പാത്രം ഞാൻ സാധാരണ വീട്ടിൽ കഴുകാറ് വിം ബാർ പോലെയുള്ള പാത്രം കഴുകുന്ന സോപ്പ് ഉപയോഗിച്ചിട്ടാണ് അതു സ്ക്രബർ പോലെ ഉള്ള സാധനം കാണും കമ്പി പോലത്തെ ചുരുണ്ടിരിക്കുന്ന കമ്പിപോലത്തെ സാധനം ഉപയോഗിച്ച് ഈ സോപ്പ് എടുത്തിട്ട് ഇത് ഈ പാത്രത്തിൽ നല്ല തേച്ചു കഴുകും പ്രത്യേകിച്ച് എണ്ണമയമുള്ള പാത്രങ്ങൾ അപ്പം നല്ലതു പോലെ തേച്ചു കഴുകും അതാണ് ആദ്യം ചെയ്യാറ് വെള്ളം നനച്ചതിനു ശേഷമാണ് ഈ പ്രക്രിയ ഞാൻ ചെയ്യാറ് അതിനുശേഷം കുറച്ചു നേരം ഒരു ഒരു മിനിറ്റോ രണ്ടു മിനിറ്റോ നല്ല എണ്ണമയം ഉള്ളതാണെങ്കിൽ കുറച്ചു നേരം ഞാൻ അതങ്ങനെ തന്നെ വെച്ചിരിക്കും ആ എണ്ണമയം മാറാൻ വേണ്ടിക്ക് എന്നിട്ട് കുറച്ചു നേരം വെച്ചിരുന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഞാൻ അതു നല്ലതു പോലെ സ്ക്രബ് ചെയ്യും ഉരച്ചു തേക്കും അതിനുശേഷം വെള്ളമൊഴിച്ച് അത് കഴുകിക്കളയും ആ സോപ്പ് കമ്പ്ലീറ്റ് കഴുകി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഒരു വട്ടംകൂടി വീണ്ടും വെള്ളത്തിൽ കഴുകും അങ്ങനെ കഴുകിയതിനു ശേഷം എണ്ണമയം ഒട്ടും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനുശേഷമാണ് വെള്ളം ഈറാൻവേണ്ടിക്ക് ആറ്റി വെയ്ക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ സാധാരണ വീട്ടിൽ പാത്രം കഴുകുന്നത്